ഹലോ മേഡം മേഡം നമസ്കാരം മേഡം ഓക്കെ ആ

ഓക്കെ മേഡം ഏത് മോഡലാ റോയൽ എൻഫിൾഡിൻ്റെ ഏത് മോഡലാ നോക്കുന്നത് ഓക്കെ ആ ആ റേറ്റ് നമുക്ക് വരുന്നത് മേഡപ്പം എങ്ങനെയാണ് റെഡി ക്യാഷായിട്ടാണോ ഉദ്ദേശിക്കുന്നത് അതോ ഈ എം ഐ ആയിട്ടോ റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ആ ഞാൻ പറയാം റെഡി ക്യാഷാണെന്നുണ്ടെങ്കിൽ ഒന്ന് നാൽപ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമുക്ക് റെഡി ക്യാഷാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരണത് ഇനി മേഡ ഇപ്പം ഇ ഈ എം ഐയായിട്ടാണ് നോക്കണേന്നുണ്ടെങ്കിൽ ഒന്ന് അറുപത് നമുക്ക് വരും കാരണം നമുക്ക് ഇ എം ഐ കാര്യങ്ങളെല്ലാം കഴിച്ച് ജി എസ് ടി എല്ലാം കൂട്ടി ഇൻട്രസ്റ്റെല്ലാം കൂട്ടി ഒന്ന് അറുപതാണ് നമുക്ക് വരണത് റേറ്റ് ഓക്കെ അപ്പോൾ പറ മേഡം പറഞ്ഞോളു ഓക്കെ കുഴപ്പമില്ല ഈ എം ഐയായിട്ടാണെങ്കിലും നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാം ആ അപ്പം മേഡം വരുമ്പോൾ മേഡത്തിൻറ്റെയൊരു ഫോട്ടോ കൊണ്ട് വരണം ആരുടെ പേരിലാണോ ഇപ്പോൾ ഈ എം ഐ നമ്മൾ ചെയ്യാൻ വെക്കണത് ഫോട്ടോയും ആ ബാങ്കി ബാങ്കിൻ്റെ പാസ് ബുക്ക് പിന്നെ ആധാർ കാർഡ് ഈ വക സാധനങ്ങൾ മേഡത്തിന് കാർഡ് വല്ലതുമുണ്ടോ ബെജാജിന് ഇല്ല അപ്പം നമുക്ക് ആ അപ്പം നമുക്ക് എകസ്ട്രാ അതിന് ചാർജ്ജ് നമ്മൾ പേ ചെയ്യും ആ എകസ്ട്രാ നമ്മളതിന് ആഡ് ചെയ്യുന്നു അപ്പോൾ

എന്നത്തേയ്ക്കാണ് മേഡം ഉദ്ദേശിക്കുന്നത് എന്നത്തേയ്ക്കാണ് ഓക്കെ ആ നമുക്ക് ചെയ്യാം നമുക്കിപ്പോൾ ഒരൂ മെയ് ഒരു സെക്കൻഡ് വീക്കൊക്കെ ആവുമ്പഴേക്കും നമുക്ക് ഓക്കെയാക്കാം ടൈമൊണ്ടല്ലോ ആ ആ ആ ടൈമാവുമ്പോഴേക്കും ആ മതി മതി മേഡം എന്തെളുപ്പം നമുക്ക് നമ്മൾ വേണെങ്കിൽ ഡെലിവറി ചെയ്യണോന്നുണ്ടെങ്കിൽ ചെയ്ത് തരാം അല്ല മേഡം ഇങ്ങട് വരാന്നുണ്ടെങ്കിൽ അങ്ങനേം ചെയ്യാം ഓക്കെ ആ മതി മതി ആ മതി മതി വേണ്ടാ നമുക്ക് കണ്ട് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ സംസാരിച്ചിട്ട് മതി എടുക്കുമ്പം അങ്ങനെ ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ